ഹലോ ഇത് ലെ ചെക്ക് റെസ്റ്റോറന്റ് അല്ലേ ഫുഡ് ഓർഡർ ചെയ്യാനായിരുന്നു എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ട്രൈ ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ അതായത് നിങ്ങളുടെ ഷോപ്പിലെ ഇന്നത്തെ നിങ്ങളുടെ മെനുവിലുള്ള എന്തേലും ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് സ്പൈസിയായിട്ടുള്ള അങ്ങനെ എന്തേലും പുതുതായി ഉണ്ടാക്കുന്നതായാലും കുഴപ്പമില്ല കുറച്ച് വെറൈറ്റി പരീക്ഷിക്കാനായിരുന്നു എന്തെങ്കിലും വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തേലും ഉണ്ടേൽ ഐറ്റം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ